എന്റെ മകന് സഹോദരന് എനിക്ക് മകനാണുള്ളത് മകന് എത്രത്തോളം വിദ്യാഭ്യാസം പൂര്ത്ത്യമാക്കണം എന്നതിനെപ്പറ്റി പറയുകയാണെങ്കില് മകൻ ഇപ്പോള് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കില് അവനെ കൊണ്ട് പറ്റുന്നതിന്റെ അത്രയും വിദ്യാഭ്യാസം അവന് നേടണമെന്നതാണ് എന്റെ ആഗ്രഹം കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യാന് മുന്നോട്ട് പോവാന് കഴിയുകയില്ല ഒന്നും തന്നെ സാധ്യമാവുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ജീവിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഉപയോഗം എത്രത്തോളം എൻ ഉണ്ട് എന്നതിനെപ്പറ്റി നാം പൂര്ണ്ണമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കൂടാതെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവന് നല്ലൊരു ജോലി നേടുക എന്നതും നമ്മുടെ ഒരാഗ്രഹം തന്നെയാണ് വിദ്യാഭ്യാസം പൂര്ത്തിയാക്കുക എന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എത്രയും പെട്ടന്ന് ഒരു ജോലി സാധ്യതയുള്ളൊരു വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുകയും കുട്ടി അതില് പൂര്ണ്ണമായും തൃപ്തനായി പഠിച്ചെടുക്കുകയും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം തന്നെ അവന് അവന്റെ കഴിവുകൾ വളര്ത്തിയെടുക്കുകയും അവന് എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസിൽ പൂര്ണ്ണമായും പങ്കെടുക്കുകയും കൂടാതെ അവനിൽ എന്തെല്ലാം നന്മകളുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നത് എന്റെ ഒരാഗ്രഹമാണ് ഇതിലൂടെ സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതിനും എല്ലാം സമൂഹത്തിലും എന്തെല്ലാം നടക്കുന്നു എന്നതിനെപ്പറ്റി തിരിച്ചറിയുന്നതിനും അവന് സാധിക്കും ഈ വരും തലമുറയിലെ കുട്ടികള് വിദ്യാഭ്യാസത്തിലുപരി സമൂഹം എന്തെന്ന് പഠിച്ചെങ്കില് മാത്രമേ സമൂഹത്തില് ജീവിക്കാന് സാധ്യമാവുകയുള്ളൂ എന്നൊരഭിപ്രായം എന്റെ ഉള്ളില് നിലനില്ക്കുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സമൂഹത്തിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങള്ക്കിടയിലാണ് നമ്മുടെ കുട്ടികള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് നല്ലതേത് ചീത്തയേത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് കുട്ടികള് പൂര്ണ്ണമായും നല്ല കുട്ടികളായി വളരുക എന്നതാണ് നമ്മള് ഇന്ന് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങള് കുട്ടികള്ക്ക് എത്രത്തോളം തുടച്ച് നീക്കാന് കഴിയും എന്നതും നമുക്ക് തിരിച്ചറിയാന് കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ന് കുഞ്ഞുങ്ങളായിരിക്കുന്നവരാണ് നാളത്തെ സമൂഹത്തിന്റെ വരും തലമുറയിലെ വരും ഭാവി ഭാവി തലമുറ വാര്ത്തെടുക്കേണ്ടവര് രാഷ്ട്രീയം സാമൂഹ്യം ശാസ്ത്രീയം എന്നീ നിലകളില് നാം എത്രത്തോളം വികാസം പ്രാപിച്ചു എന്നത് തിരിച്ചറിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അളവുകോലായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമൂഹത്തില് പലരെയും വിലയിരുത്തുന്നത് വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് പോലും നല്ലൊരു ജോലി നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം ഇന്നത്തെ സമൂഹത്തില് എല്ലാവരും എത്രത്തോളം തന്നെ പാടുപെട്ട് കഴിഞ്ഞാലും നല്ലൊരു വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നതാണ് പല രക്ഷിതാക്കളും ലക്ഷ്യമിടുന്ന ഒരു കാര്യം അതുകൊണ്ടുതന്നെ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മള് കുഞ്ഞുങ്ങളെ നല്ലൊരു വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവിയെ വാര്ത്തെടുക്കാന് സാധ്യമാവുകയുള്ളൂ ഇത് സമൂഹത്തിന്റെ നാനാ തുറവുകളില്പ്പെട്ട ആളുകളും ഇത്തരം മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്ന് പോയിക്കോണ്ടിരിക്കുന്നത് ഇത് സമൂഹത്തിന്റെ നല്ലൊരു നാളേക്കായി നാം കാത്തിരിക്കുന്നതിലൂടെയാണ് കുഞ്ഞുങ്ങള് എത്രത്തോളം വിദ്യാഭ്യാസം നേടിയെടുക്കുന്നുവോ അത്രത്തോളം നാം അവരെ സഹായിക്കുകയും ചെയ്യുന്നു അത് അവരുടെ ഭാവി തലമു ഭാവി ജീവിതം നന്നായി വരുവാന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങള് ചെയ്യുന്നത് ഇത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ധാരാളം കാര്യങ്ങള് കുഞ്ഞുങ്ങള് കണ്ട് പഠിക്കുന്നുണ്ട് അതില് നല്ലതേത് ചീത്തയേത് എന്ന് കണ്ട് മനസ്സിലാക്കുന്നതിനും അതിന്റെ ഭാവി പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനും ഭവിഷ്യത്തുകളെപ്പറ്റി മനസ്സിലാക്കുന്നതിനും മറ്റും കുഞ്ഞുങ്ങള് പൂര്ണ്ണമായി സജ്ജരായിരിക്കണം ഇത് കുഞ്ഞുങ്ങളുടെ ഓരോ തരം മാറ്റങ്ങളെയും സഹായിക്കുന്നു ഇതിലൂടെ മാത്രമേ നിങ്ങള് നിങ്ങൾ എന്തെന്നും നിങ്ങളിലെ പ്രശ്നങ്ങൾ എന്തെന്നും തിരിച്ചറിയാന് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ സഹോദരന് എത്രത്തോളം വിദ്യാഭ്യാസം നേടിയെടുക്കണമെന്ന പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുകയാണ് എങ്കില് സഹോദരന് നല്ല രീതിയില് പറ്റുന്ന രീതിയില് നല്ലൊരു വിദ്യാഭ്യാസം നേടിയെടുക്കുകയും അവന് അവൻറേതായ ജോലി സാധ്യതകള് തേടിപ്പോവുകയും ചെയ്ത ഒരാളാണ് അതിനാല് മകന് എത്രത്തോളം വിദ്യാഭ്യാസം നേടണം എന്നതിനെപ്പറ്റിയാണ് ഞാന് ഇപ്പോള് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വിദ്യാഭ്യാസം പൂര്ത്തിയാക്കിയാലും അവര് അവർ എന്തെന്നും അവരിലെ നന്മ എന്തെന്നും അത് തിരിച്ചറിഞ്ഞ് ജീവിക്കാന് കഴിയുന്നുവെങ്കില് അത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും നല്ല കാര്യം കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ അവര് അവർ എന്തെന്നും അവരിലെ നന്മ എന്തെന്നും കുഞ്ഞുങ്ങൾ എന്താണ് വ ഭാവിയെപ്പറ്റി ആലോചിക്കുന്നതെന്നും നന്നായി ചിന്തിച്ച് ജീവിക്കണ്ട ഒരു കാലത്താണ് നാം ഇന്നത്തെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാല് അതെല്ലാം മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസവും അതിനുള്ളൊരു മനസ്സും അതിനുള്ള ഒരു മനസ്സ് പാകപ്പെടുത്തിയെടുക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങള് ചെയ്യേണ്ടത് സമൂഹത്തില് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും അതിന് എത്രത്തോളം ഫലവത്തായി ഓരോ പ്രശ്നങ്ങള് വാ മാറ്റിയെടുക്കാന് സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ലക്ഷ്യം